പ്രധാനമന്ത്രി പോഷണ പദ്ധതി എന്നത് എല്ലാവർക്കും പോഷണഗുണമുള്ള ആഹാരം കിട്ടുന്നുണ്ടോ എന്നുറപ്പ് വരുത്താൻ വേണ്ടി സർക്കാർ നിലവിൽ വരുത്തിയ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷണ പദ്ധതി ഇതിലൂടെ എല്ലാവർക്കും ഒരേ പോലെ പോഷണഗുണമുള്ള ആഹാരം കിട്ടാനുള്ള ഒരവസരം നൽകുന്നു ഇപ്പം സ്കൂളിൽ തന്നെ ആയിക്കോട്ടെ ആഴ്ചയിലൊരു ദിവസം മുട്ട പാല് എന്നിവ കുട്ടികൾക്ക് നൽകുന്നതും അതുപോലെ നമ്മളുടെ കാലത്തൊക്കെ സ്കൂളിൽ നിന്നും കഞ്ഞിയും പയറുമാണ് കൊടുത്തിരുന്നത് എന്നാലിന്ന് സ്കൂളിൽ എട്ടാം ക്ളാസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചോറും കറിയും അതുപോലെ ഒന്നല്ല ഒര് ഒന്ന് രണ്ട് മൂന്ന് തരം കറികളും ഉൾപ്പെടെയുള്ള അച്ചാറുൾപ്പെടെയാണ് കുട്ടികൾക്കിപ്പോൾ സ്കൂളിൽ നിന്നും നൽകുന്നത് അത്പോലെതന്നെ നമുക്ക് അംഗൻവാടി വഴി നൽകുന്ന പോഷക ആഹാരം നമുക്ക് ഈ കൗമാര കുട്ടികൾക്ക് വേറെ അവരുടെ തരത്തിലുള്ള പോഷകാഹാരങ്ങൾ അതുപോലെ ആറുമാസം മുതൽ രണ്ടു വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരേയുള്ള കുട്ടികൾക്ക് അമൃത പൊടി അഥവാ മുത്താറി ഇവ നല്കുന്നതുമൊക്കെ പോഷണ ഗുണമുള്ള ആഹാരം അവർക്കു ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രാണ് മാസം മാസം അവർക്ക് ഈ ഗർഭിണികൾക്കായിക്കോട്ടെ അവർക്കുള്ള പോഷകങ്ങൾക്ക് വേണ്ടീട്ട് ഗോതമ്പ് അതുപോലെ ഉഴുന്ന് അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഗർഭിണികൾക്കായിക്കോട്ടെ കൗമാരത്തിലു കുട്ടികൾക്കായിക്കോട്ടെ അതുപോലെ വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കായിക്കോട്ടെ അതുപോലെ ശിശുക്കൾക്കായിക്കോട്ടെ ഒരുപോലെ പോഷകഗുണമുള്ള ആഹാരം അംഗൻവാടി വഴിയും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഈ പ്രധാനമന്ത്രി പോഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലൂടെ എല്ലാവർക്കും പോഷകഗുണമുള്ള ആഹാരം ലഭിക്കുന്നുമുണ്ട്